ഇപ്പോൾ കോഴിക്കോട് ജില്ലയിൽ ഒരു മത്സ്യബന്ധനമൊക്കെ എങ്ങനെയാണ് നല്ല രീതിക്ക് വരുന്നതെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ കടലിലൊക്കെ മത്സ്യം ബന്ധനത്തിന് പോകുന്ന ഒരുപാട് തൊഴിലാളികളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം അവർ പോയി കഴിഞ്ഞപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ കടലിലൊക്കെ പോയിട്ട് ഒരുപാട് മത്സ്യങ്ങളൊക്കെ കിട്ടി അത്യാവശ്യം നല്ല എന്താ പറയുക അവർ പറയുന്നത് ചാകരയെന്നാണ് അങ്ങനെയുള്ള മീനുകളൊക്കെ കിട്ടി കഴിഞ്ഞാലാണ് പൊതുവേ എന്താ പറയുക നല്ലൊരു റിസൾട്ട് കിട്ടുകയെന്ന് പറയുന്നത് അപ്പോൾ അവരെങ്ങനെയാണ് ആഘോഷിക്കുന്നതെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല മത്സ്യത്തിനെയൊക്കെ കിട്ടി കഴിഞ്ഞാൽ അവർക്കത് വലിയൊരാഘോഷം തന്നെയാണ് കാരണം അത്രയും മത്സ്യത്തിനെയൊക്കെ കിട്ടി കഴിയുമ്പോൾ അവർക്ക് അതൊരു എന്താ പറയുക വലിയൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പിന്നെ പറയുകയാണെങ്കിൽ ഇപ്പോൾ കൂടുതലും മത്സ്യബന്ധനക്കാർക്ക് കടലിൽ പോയി കഴിഞ്ഞാൽ നല്ല എന്താ പറയുക അത്യാവശ്യം വള്ളം നിറച്ച് മീനിനെ കിട്ടി കഴിഞ്ഞാലത് വലിയൊരു കാര്യമാണ് പിന്നെ അത്യാവശ്യം വില കൂടിയ മത്സ്യങ്ങളൊക്കെ കിട്ടുമ്പോളാണ് അവർക്ക് നല്ല എന്താ പറയുക അത്യാവശ്യം സെറ്റിലാകാനുള്ള ഒരു ഇതൊക്കെ കിട്ടുകയുള്ളൂ അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കത് വലിയൊരു കാര്യമായിരിക്കും അതുപോലെ തന്നെ ഇപ്പം സമൂഹത്തിലുള്ളവർക്ക് അതിനെപ്പറ്റി വലിയ പിടിയുണ്ടാവില്ല കാരണം ഈ എന്താ പറയുക ഈ മത്സ്യബന്ധനത്തിൽ ഇറങ്ങുന്നവർക്കേ അതിൻ്റെ കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് പറയാനൊക്കെ സാധിക്കുകയുള്ളൂ